ജോലി സ്ഥലത്തെ സംഘര്ഷങ്ങളും പ്രയാസകരമായ സാഹചര്യങ്ങളും എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചു പറഞ്ഞാൽ പൊതുവെ ഞാന് സൈലൻറ്റ് ആയതുകൊണ്ട് തന്നെ ആരോടും ആയിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ല സംസാരിക്കും ആവശ്യത്തിനു മാത്രം സംസാരിക്കും എപ്പോഴും ആരെങ്കിലും അവര്ക്ക് തെറ്റായ രീതിയില് എൻ്റെ അടുത്ത് പറയാണെന്ന് പറഞ്ഞാൽ അവരിപ്പം എന്ന് പറഞ്ഞാൽ അവര്ക്ക് തെറ്റായത് കൊണ്ട് കൊണ്ടല്ലേ അവര് പറഞ്ഞതെന്ന് വിചാരിച്ച് ഞാന് മിണ്ടാതിരിക്കുകയേ ചെയ്യുള്ളൂ അധികം ആരോടും ദേഷ്യപ്പെടാനും പോകില്ല അധികം ആരോടും സംസാരിക്കാനും പോകില്ല മറ്റുള്ളവര്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നു പറഞ്ഞാൽ അതൊക്കെ സോള്വ് ചെയ്യാന് പോകാറുണ്ട് എന്നെകൊണ്ട് പറ്റണതാണെന്ന് പറഞ്ഞാൽ ഞാന് പോവും അല്ലാന്നു പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് ഞാന് ചെയ്യുക അധികം ഒന്നിലും പോയി ഞാന് തല ഇടാറില്ല പിന്നെ വര്ക്കുകളൊക്കെ ഏറ്റെടുക്കുക എന്ന് ചോദിച്ചു പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന വര്ക്കുകളൊക്ക ഏറ്റെടുക്കും അത് ഓവർ ടൈം വര്ക്കായിട്ടു ഞാന് ചെയ്യാണെങ്കിലും എന്നെകൊണ്ട് പറ്റണ മാത്രമേ ഞാന് ചെയ്തു കൊടുക്കാറുള്ളൂ അധികം ആരോടായിട്ടു സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യാത്ത ചെയ്യി ചെയ്യില്ല അങ്ങനെ ആരോടായിട്ടും അത്ര കമ്പനി അല്ലാത്ത ഒരാളാണ് ഞാൻ